ഞാനിവിടെ അടുത്തുള്ള റസ്റ്റോറന്റിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിച്ചതാ നീ അവിടെ പോയീന്നൊക്കെ ഞാനറിഞ്ഞു അപ്പം നല്ല ഫുഡാണ് അവിടെന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പം എനിക്കീ മസാല പിന്നെ അതേപോലെത്തന്നെ നല്ല മധുരമുള്ളത് അങ്ങനെയൊക്കെയുള്ള ഫുഡ് അവിടെ കിട്ടുമോ അതൊക്കെ അറിയാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത് അവിടുത്തെ ഫുഡിൻ്റെ വെറൈറ്റി എങ്ങനെയാണ് എനിക്ക് മധുരം ഭയങ്കരിഷ്ടമാണ് മസാല ഉള്ളതൊക്കെ അപ്പം നീയന്ന് പോയിന്നെന്നോട് ഞാന് പിന്നെ ഇവളെ വിളിച്ചായിരുന്നു സുജേന വിളിച്ചപ്പം പറഞ്ഞു നീ പോയാരുന്നൂന്ന് അപ്പോൾ നിന്നോട് ചോദിച്ചു നോക്ക് എങ്ങനയാന്ന് അപ്പം എനിക്കവിടുന്ന് ഫുഡ് കഴിക്കാനാ കുറച്ച് കൂടുതല് ഇതുവേണം നല്ല എല്ലാവരും പറഞ്ഞു നല്ലതാ നല്ലതാന്ന് അപ്പം നീ പോയി കഴിച്ച് കഴിച്ചോ ഓള് പറഞ്ഞു കഴിഞ്ഞ ദിവസം പോയീന്ന് അപ്പം അവിടത്തെ ഫുഡ് എങ്ങനെയാന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് എനിക്ക് എന്താ പറയുക ഭയങ്കരിഷ്ടമാണ് അപ്പം പിന്നെ മസാല ഐറ്റംസ് മസാല ടീയ് അതേപോലെ ഗുലാബ്ജാമുൻ പിന്നെന്തൊക്കെയോ സ്വീറ്റ്സ് ഐറ്റംസൊക്കെ പേരു പറഞ്ഞായിരുന്നു അപ്പം നീ എന്തൊക്കെയാ കഴിച്ചേന്നറിയണം പിന്നെ അത് അവിടെ എങ്ങനെയാണ് റേറ്റ് കാര്യങ്ങള് നല്ല ഫുഡാണോന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കണം എന്ന് വിചാരിച്ച് കുറെ ദിവസമായി